ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥ സാധാ രീതിയിൽ തണുപ്പുള്ളതായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് തണുപ്പ് കൂടിവരുന്നു ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തണുപ്പും അതോടൊപ്പം ചെറിയ വേനലും തുടങ്ങുന്നു നല്ല കാറ്റുണ്ട് വേനൽ കാലഘട്ടങ്ങളിൽ നല്ല ചൂടും സഹിക്കാൻ കഴിയുന്ന ചൂടുകളെ ഉള്ളൂ പിന്നെ വേനൽ വേനൽ കാലഘട്ടത്തിൽ വെള്ളത്തിൻ്റെ നില ലഭ്യത കുറയുന്നു മഴ പെയ്യുന്ന സമയങ്ങളിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതകളുണ്ട്

അത് കൃഷിയെ വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട് കൃഷിയുടെ കൃഷി മെച്ചപ്പെടുത്താനും അതോടൊപ്പം അതിൻ്റെ നിലവാരം കൂട്ടാനും കർഷകർ വളരെയധികം പ്രശ്നം പരിശ്രമിക്കുന്നു എന്നിരുന്നാലും കാലാവസ്ഥ അതിനുനേരെ എതിരായാണ് വരുന്നത് കാലാവസ്ഥ മഴ പെയ്യുമ്പോൾ പലരുടേയും കൃഷികൾ നശിക്കുന്നു വേനൽ തുടങ്ങുമ്പോഴും വെള്ളമില്ലാണ്ടാകുന്നതുകൊണ്ട് തന്നെ കൃഷിയ്ക്ക് വേണ്ട രീതിയിലുള്ള വെള്ളം നൽകാൻ കർഷകർക്ക് കഴിയുന്നില്ല അതോടൊപ്പം തണുപ്പ് വരുന്ന കാലഘട്ടത്തിലാണങ്കിലും ചില സമയങ്ങളിൽ നല്ല കാറ്റുണ്ടാവും അപ്പോൾ മരങ്ങളൊടിയാനും സാധ്യതയുണ്ട് മരങ്ങൾ ഒടിഞ്ഞു കഴിയുമ്പോൾ കൃഷികൾ വളരെയേറെ നശിക്കുന്നു കാർഷിക ജീവിതത്തിനെ വളരെ ബുദ്ധിമുട്ടോടെയാണ് കാണുന്നത് മാർച്ച് മെയ് മാസങ്ങളിൽ നല്ല ചൂടാണ് വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് കൃഷിയെ മാത്രമല്ല മനുഷ്യർക്കും അത് വളരെ ഏറെ പാഴാണ് കുടിവെള്ളവും മൃഗങ്ങൾക്കുമുള്ള വെള്ളം ലഭിക്കാത വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ കനത്ത മഴ ഉണ്ടായപ്പോൾ ഇടുക്കി ജില്ലയിൽ പല രീതിയിലുള്ള ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കവുമുണ്ടായി അതിനു ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്

എൻ്റെ കൃഷിയിടത്ത് ഉരുൾപ്പൊട്ടിയിട്ടുണ്ട് കുറേയേറെ കൃഷികൾ നശിച്ചുപോയി അത് തുടർന്നുള്ള വർഷങ്ങളിൽ അതിനെതിരെ നശിച്ചുപോയ കൃഷികളെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ കുറേ കുറേയേറെ പരിശ്രമിച്ചു അതിന് അതിനോടൊപ്പം ആ വർഷങ്ങളിൽ കാലാവസ്ഥയിൽ വലിയ കുഴപ്പമൊന്നുമുണ്ടായില്ല അതുകൊണ്ട് കൃഷിയും നല്ല രീതിയിൽ വന്നു അതപോലെതന്നെ ഈ വർഷവും കൃഷികൾക്ക് കുഴപ്പമുണ്ടായില്ല എന്നാലും ചൂടാണ് ഈ മാസങ്ങളിൽ മാർച്ചിലൊക്കെ നല്ല ചൂടാണ് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ചൂടു കൂടുകയാണ്